ഇന്ത്യ ഒരു ജനാതിപത്യ രാജ്യമെന്ന നിലയിൽ മെച്ചപ്പെട്ട ഭരണ സംവിധാനം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത് രാഷ്ട്രീയ പാർട്ടികളിൽ സി പി ഐ എം ഉണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മറ്റ് അനേകം പാർട്ടികളുണ്ട് പക്ഷെ ഇതിനെന്നെല്ലാം വ്യത്യസ്തപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ ഭരണം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി രാഷ്ട്രത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ഉപയോഗിക്കാറുണ്ട് മറ്റുള്ളവർ പക്ഷെ അങ്ങനെയല്ല സ്വന്തം രാജ്യത്തിനു വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യയിലെ ജനാതിപത്യമെന്ന രാജ്യം ജനാതിപത്യ ഭരണം എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളവരുടെ കാര്യങ്ങളവരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലെ ജനാതിപത്യ രീതിയെന്നുള്ളത് വളരെ നല്ല രീതിയിൽത്തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് പക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വന്തമായ താല്പര്യത്തിനു വേണ്ടി അവർ പാർട്ടിയെയും രാഷ്ട്രീയത്തേയും ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് നേതാവെന്ന് പറയുന്നത് ഉമ്മൻ ചാണ്ടി സാറായിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ നമുക്ക് ഇനി ഒരിക്കലും കാണാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിനു മുൻപ് എന്നെങ്കിലും കണ്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു